ഹാലോ ആയ ഇത് ക്യാബിൻ്റെ ഓഫീസല്ലേ ആ ഞാൻ രാവിലെ ഒരു എട്ടരയ്ക്കൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ആ എയർപോർട്ടിലേക്ക് ഉള്ളത് അത് തന്നെ അപ്പം നിങ്ങളുടെ ഡ്രൈവർ ഇന്നെനിക്ക് എന്താ പറയുക ഞാൻ പറഞ്ഞ ടൈമിലും ലേറ്റ് ആയിട്ടാണ് വന്നിരുന്നത് എനിക്ക് എയർപോർട്ടിലെത്തേണ്ട ടൈമിന് അനുസരിച്ചായിരുന്നു ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞിരുന്നത് അപ്പം നിങ്ങളുടെ ഡ്രൈവർ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് എനിക്കെൻ്റെ പ്ലെയിൻ മിസ്സായി അതായത് എൻ്റെ ഫ്ലൈറ്റ് ഞാൻ എത്തുന്നതിനുമുമ്പ് ടേക്കോഫായി എനിക്കവിടുന്ന് എത്താൻ പറ്റിയില്ല എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു നിങ്ങള് കാരണം അതെനിക്ക് നഷ്ടപ്പെട്ടു നിങ്ങള് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം ഉള്ളവരാണെങ്കിൽ കറക്റ്റ് ടൈമിന് എത്തേണ്ടതാണ് ഇതിപ്പോൾ നിങ്ങള് വരാത്തത് കൊണ്ടുതന്നെ എനിക്ക് പ്ലെയിൻ മിസ്സാവുകയും എൻ്റെ മീറ്റിംഗ് അവിടെ ക്യാൻസലാവുകയും ചെയ്തു നിങ്ങളിപ്പോൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒന്നെങ്കിൽ നിങ്ങള് റീഫണ്ട് ചെയ്യുക അതല്ലാണ്ട് വേറെ ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ ഇപ്പം എന്ത് പറയാനാണ് നിങ്ങള് റീഫണ്ട് ചെയ്യുക നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളോട് നമ്മള് വിളിച്ചാവശ്യപെട്ടിട്ട് നിങ്ങളത് ചെയ്യാത്തതിന് നമ്മളല്ല അതിന് ഇത് ചെയ്യേണ്ടത് നിങ്ങള് തന്നെ എനിക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരണം റീഫണ്ട് ചെയ്തോളു അല്ലാണ്ട് എനിക്ക് വേറെ ഓപ്ഷനൊന്നും പറയാനില്ല ഓക്കെ ഓക്കെ താങ്ക്യൂ അതായിരിക്കും നല്ലത് റീഫണ്ട് ചെയ്താൽ മതി ഓക്കെ ഓക്കെ